കൊച്ചുകുട്ടികളിൽ പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുകയും നമ്മൾ പറഞ്ഞ് അവരെ അത് മനസ്സിലാക്കി ഓരോ അക്ഷരങ്ങളും അതിന്റെ ഖണ്ഡികകളും പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കുക അപ്പോൾ അവർ വായനാശീലം അവരിൽ ഉണ്ടാകുകയും നമ്മൾ അത് അവരെ എപ്പോഴും നിർബന്ധിച്ച് അത് വായിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ വായനാശീലം വളരുകയും അവർക്ക് വായിക്കണമെന്നുള്ള ആകാംക്ഷ തോന്നുകയും എന്താണ് അതിന്റെ അർത്ഥമെന്ന് നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊടുക്കുകയും ചെയ്യണമെന്ന് ആണ് എന്റെ മനസ്സിലിരിപ്പ് അതുപോലെ കൊച്ചുകുട്ടികൾ ഒരാളല്ല മൂന്നാലു പേരെ ഒന്നിച്ചിരുത്തി വായിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിശകലനം ചെയ്ത് അവർക്കത് മനസ്സിലാകുന്ന രീതിയിൽ ആയിക്കൊള്ളും എന്നാണ് എന്റെ ഒരു മനസ്സിലിരിപ്പ് അപ്പോള് അതുപോലെതന്നെ കുട്ടിക ളിൽ ചെറുപ്പം മുതലേ പുസ്തകങ്ങൾ അവർക്ക് കൊ കൊടുക്കുകയും അതിന്റെ അക്ഷരങ്ങൾ എല്ലാം അവരെ പഠിപ്പിക്കുകയും അതിന്റെ അർത്ഥങ്ങളോ ഒരോ മനസ്സിലാക്കിക്കൊണ്ട് അവരെ അത് വായിപ്പിക്കുകയും ചെയ്ത് അതിന്റെ രീതികൾ എല്ലാം മനസ്സിലാക്കി അവരെ പറഞ്ഞു മനസ്സിലാക്കണം എന്നാണ് എന്റെ ഒരു ഉപദേശം ഇപ്പോഴുള്ള കുട്ടികൾ പുസ്തകങ്ങൾ വായനയോട് അവർക്ക് ഇഷ്ടമില്ല അവർക്ക് ഫോണും റ്റീവിയും മാത്രമാണ് അപ്പോള് പുസ്തകവായനയൊക്കേ അവർക്ക് തീരെ കുറവാണ് അവർ റ്റീവിയും ഫോണിൽക്കൂടെയുള്ളെ അറിവുകൾ മാത്രമാണ് അവർക്ക് പുസ്തകങ്ങളിലൂടെ ഉള്ള അറിവാണ് ഏറ്റവും നല്ലത് എഴുത്ത് വായന പ്രക്രിയാ അവർ തുടന്ന് തുടര ന്ന് പഠിക്കണം ഫോണും റ്റീവിയില്ക്കൂടെ കാണുന്നതല്ല ഒരു അറിവ് അപ്പോൾ എഴുത്തും വായനയില്ക്കൂടിയാണ് എല്ലാ അറിവുകളും നമ്മൾ നേടുന്നത് പഴയ കാലത്തുള്ള എല്ലാ ആൾക്കാരും പ്രായമായാലും കൊച്ചുകുട്ടികളും എല്ലാം വായനാ പത്രവായന എല്ലാ പുസ്തകങ്ങളും

വായനയിൽക്കൂടി മാത്രമാണ് അറിവുകൾ കിട്ടുന്നത് പുസ്തകം വായിക്കുന്നതിൽക്കൂടി കൂടി ലോകത്തെ പറ്റിയുള്ള വിവരങ്ങളും എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് എന്റെ ഒരു നിഗമനം ആ കുട്ടികൾ ആയാൽ ലൈബ്രറിയിൽ വിടുക പുസ്തകങ്ങളെടുപ്പിക്കുക എല്ലാ എഴുത്തുകാരുടെയും നല്ല എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിക്കുവാൻ ലൈബ്രറി മുഖാന്തരം സാധിക്കും നല്ല നല്ല ലേഖനങ്ങളും എല്ലാ നല്ല നോവലുകളും അതുപോലെ ലോകത്തെ കുറിച്ചുള്ള എല്ലാ അറിവുകളും ആ ലൈബ്രറിയിലെ ബുക്കുകൾകൊണ്ട് സാധിക്കും എന്നാണ് എന്റെ കണക്കുകൂട്ടൽ മലയാള മനോരമയിലെ കളിക്കുടുക്ക ബാലരമ അതുപോലെ മാതൃഭൂമിയിലെ എല്ലാ ലേ ലേഖനങ്ങളും എല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് വാർത്താ മാധ്യമങ്ങൾ കുട്ടികൾക്ക് അറിവ് പകരാൻ വേണ്ടിയുള്ള സംരംഭമാണ് അത് എല്ലാവരും മാതാപിതാക്കളും മറ്റുള്ളവരും അവരെ പറഞ്ഞു മനസ്സിലാക്കി നിർബന്ധമായും എല്ലാ വീടുകളിലും പത്രങ്ങൾ വരുത്തി അവരൊക്കെ പത്രവായന ഒരു ശീലമാക്കണം എന്ന് ഞാൻ കണക്കുകൂട്ടുന്നു അതുപോലെതന്നെ കുട്ടികൾ പ്രായ കുട്ടികൾ പത്താം ക്ലാസ് ജയിച്ചു കഴിയുമ്പോൾ മുതൽ മറ്റുള്ളതിനെക്കാൾ ഉപകാരപ്പെടുന്നതാണ് തൊഴിൽവീഥി വായനാശീലം ഏതൊരു തൊഴിലിനെപ്പറ്റിയും അവർക്ക് ഒരറിവ് ലഭിക്കുകയും അതുപോലെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഏത് ജോലിക്കു ഒരപേക്ഷിക്കുവാനുള്ള ഒരു കാരണം അവർക്കുണ്ടാവും